പ്രിയപ്പെട്ട ഒരു സിനിമാതാരത്തെക്കുറിച്ച് പറയുകയെന്ന് പറയണത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് കാരണം നമ്മളുടെ മലയാള സിനിമ ഇപ്പോൾ വളരെ മികച്ചതായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിനൊക്കെ ഉദാഹരണമാണ് രണ്ടായിരത്തിപ്പതിനെട്ട് എന്ന് പറയുന്ന സിനിമ അതുപോലെ ഒരുപാട് ചരിത്രത്തിനെക്കുറിച്ച് പറയുന്ന മുൻകാലത്തിലേക്ക് പോകുകയാണെങ്കിൽ പഴശ്ശിരാജ എന്നു പറയുന്ന സിനിമയൊക്കെ വളരെ അതൊക്കെ അതിൽ അഭിനയിച്ച മമ്മൂട്ടിയെന്ന് പറയുന്ന ആൾ അതുപോലെ അതുപോലെത്തന്നെ ഇപ്പോഴത്തെ പുതിയ താരങ്ങളായിട്ടുള്ള ടൊവിനോ പൃഥ്വിരാജ് എന്നിവർ എല്ലാവരും എല്ലാവരും തന്നെ മലയാള സിനിമയിലെ എല്ലാ പുതിയ താരങ്ങളായിക്കോട്ടെ പഴയ താരങ്ങളായിക്കോട്ടെ അവർ ചെയ്യുന്ന ഓരോ സിനിമയും വളരെ മികച്ചതായി മാറിക്കൊണ്ടിരിക്കുകയാണ് മലയാള സിനിമ ഇൻ്റസ്ട്രി തന്നെ മികച്ചതായിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് പേരെടുത്ത് പറയുകയാണെങ്കിൽ പൃഥ്വിരാജ് എന്നുപറയുന്ന നടനും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നാല്പതുകളിൽ അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ ഒരു ഉറ്റ സ്ഥാനത്തു തന്നെയാണ് നിൽക്കുന്നത് അദ്ദേഹം എന്താണോ വർഷങ്ങൾക്ക് മുന്നേ ആഗ്രഹിച്ചത് അതുപോലെ തന്നെ നടപ്പാക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് അതുപോലെ പഴയ പഴയത് എന്നുപറയാൻ കഴിയില്ല ഇന്നും വളരെ സജീവമായി നിൽക്കുന്ന ആളുകളാണ് മമ്മൂട്ടി മോഹൻലാൽ എന്നിവരൊക്കെ അതുപോലെത്തന്നെ മഞ്ജുവാര്യർ എന്നുപറയുന്ന ഒരു നടി ഒരു നായിക ഇടയ്ക്ക് ഒരു ഗ്യാപ് എടുത്തിരുന്നാൽക്കൂടിയും വളരേ നല്ല രീതിയിലുള്ള ഒരു റീബാക്ക് ആണ് കാണാൻ കഴിയുന്നത് അതുപോലെ പഴയ നായികയായിട്ടുള്ള ശോഭന ഉർവശി ഇവർ സിനിമ താരങ്ങൾ പ്രിയപ്പെട്ടവരേ എന്ന് പറയുന്ന സമയത്ത് ഇവരെ എല്ലാവരെയും ഉൾപ്പെടുത്തേണ്ടതുണ്ട് എല്ലാവരും തന്നെ എല്ലാവരും നവ്യ നായർ മഞ്ജു വാര്യർ അതുപോലെ പുതിയ ആൾക്കാരായിക്കോട്ടെ കല്യാണി പ്രിയദർശൻ അനാർക്കലി അതുപോലെ ഒരുപാട് പേര് ഒരുപാട് പേര് നല്ല രീതീലുള്ള അഭിനയമാണ് കാഴ്ച വയ്ക്കുന്നത്